ഒരു കുട്ടി അമ്മയുടെ മടിയിൽ കിടന്ന് പഠിക്കുന്ന ഭാഷയാണ് മാതൃഭാഷ അതായത് അമ്മയുടെ ഭാഷ അമ്മയുടെ നാവിൻ നിന്ന് വഴങ്ങുന്ന ഭാഷയാണ് കുട്ടി കേട്ട് പഠിക്കുന്നത് അതാണ് മാതൃഭാഷ നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളമാണ് കേരളക്കാരുടെ കേരളീയരുടെ മാതൃഭാഷ മലയാളമാണ് ഒരുപാട് സവിശേഷതകളും ഒരുപാട് സുന്ദരവുമായ ഒരു ഭാഷയാണ് മലയാളം സംസ്കൃതത്തിൽ നിന്നാണ് മലയാളം രൂപപ്പെട്ടിട്ടുള്ളത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് മലയാളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വളരെ ഏറെ കഠിനവും കാഠിന്യമേറിയതും വളരെ സുന്ദരവുമായ ഒരു ഭാഷയാണ് മലയാളം അതുകൊണ്ട് തന്നെ നമ്മുടെ മാതൃഭാഷ ആയ മലയാളം കുട്ടികൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഏറെ പ്രാധാന്യമുണ്ട് നമ്മുടെ മലയാളത്തിൻ്റെ ചരിത്രവും മലയാളത്തിൻ്റെ സൗന്ദര്യവും അതേപോലെ തന്നെ ആ കുട്ടികളുടെ മലയാളഭാഷ എന്നിവയും എല്ലാം കുട്ടികൾ പഠിച്ചിരിക്കേണ്ടതാണ് നമ്മുടെ മലയാളത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതാണ് മലയാളഭാഷ അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരു കുട്ടിക്ക് തൻ്റെ മാതൃഭാഷയിലൂടെ മാ മാതൃഭാഷയിലൂടെ ആണ് ഏറ്റവും നന്നായി സംസാരിക്കാൻ സാധിക്കുന്നത് പല തരത്തിലുള്ള നേട്ടങ്ങളും ഇതിലൂടെയുണ്ട് മലയാളം പഠിക്കുന്നതിലൂടെ മലയാള അക്ഷരങ്ങൾ പഠിക്കുന്നതിലൂടെ കുട്ടിക്ക് നല്ലൊരു കേരളീയനായി മാറാൻ സാധിക്കുന്നതാണ് നല്ലൊരു ഭാഷാ നൈപുണ്യങ്ങളും നേടാൻ നേടിത്തരുന്നതാണ് ഭാഷാ നൈപുണ്യങ്ങൾ വളർത്തുന്നതിനും മലയാളത്തിലൂടെ മലയാളം പഠിപ്പിക്കുന്നതിലൂടെ ഭാഷാ നൈപുണ്യം വളർത്താനും അതേപോലെ തന്നെ കുട്ടികളുടെ ഭാഷ ശേഷി വികസിപ്പിക്കുന്നതിനും ഒരുപാട്